കൃഷി കൃഷി കപ്പ ഏലം പിന്നെ കുരുമുളക് അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട് ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് വളം ചാണകവും പിന്നെ പശുവിൻ്റെ യൂറിന് അങ്ങനെ ഒക്കെ ആയിരുന്നു കൃഷിക്കുപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എന്നാന്ന് വെച്ചാൽ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കീടനാശിനികള് വളങ്ങള് അങ്ങനെയൊരുപാട് ഇപ്പം ഗവൺമെൻ്റ് അല്ലെങ്കിൽ മറ്റ് പദ്ധതികളൊക്കെ കൂടിക്കൊണ്ടിരിക്കുവാണ് വളങ്ങളൊക്കെ സാങ്കേതികമായിട്ടുള്ള വളങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷകാ വിഷമായിട്ടുള്ള വളങ്ങള് തന്നെയാണിപ്പം ചെയ്യുന്നത് പക്ഷേ സാധാരണ മനുഷ്യര് പഴയ ആൾക്കാര് അല്ലെങ്കിൽ സാധാരണ മനുഷ്യര് പഴയ ജൈവവളങ്ങള് പിന്നെ കരിയില വാരിയിടുക അല്ലേൽ ചാണകം ഇടുക അങ്ങനെ ഒക്കെ ഉള്ള വളങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇപ്പം പഴയതുപോലെ അല്ല വർഷങ്ങൾക്ക് മുൻപ് ചാണകവും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കൃഷി അതേ രീതിയില് ഇപ്പം ഈ നൂറ്റാണ്ടിലുപയോഗിക്കുമ്പം അതൊന്നും ഫലം തരുന്നില്ല ഒന്നും അത് ലഭ്യമാകുന്നില്ല കാരണം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കില് കീടനാശിനികള് വിഷാംശം നിറഞ്ഞ മരുന്നുകള് ഇതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇതുപയോഗിച്ചില്ലെങ്കിൽ കീടങ്ങളെല്ലാം അല്ലേൽ കൃഷികളെല്ലാം നശിച്ച് ഉണങ്ങി പോവും നമ്മള് സാധാരണ പഴയ മരുന്ന് ഉപയോഗിക്കുമ്പം പഴയ മരുന്ന് ഉപയോഗിക്കുമ്പം ഒന്നും അത് വിളകള് ഫലം തരുന്നില്ല ആ സമയത്ത് മറ്റ് വിഷകാരികളായ മരുന്നുകള് ഉൽപാ മേടിച്ച് അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിക്കുക അല്ലങ്കില് മരുന്ന് ചീറ്റിക്കുക അങ്ങനെ ചെയ്യുമ്പം മാത്രമേ അതിന് ഫലം കിട്ടുമെന്നുള്ളു പക്ഷെ ഈ വിഷകാരികളായ ഈ മരുന്നുകൾ ഈ ചെടികൾക്ക് അല്ലെങ്കിൽ ഈ കൃഷിക്ക് ഉപയോഗിക്കുമ്പം മനുഷ്യനത് കഴിക്കുന്നു മനുഷ്യൻ രോഗികളായി മാറുന്നു പക്ഷെ പഴയ കാലങ്ങളിലൊക്കെ ആയിരുന്നെങ്കില് അല്ലെങ്കിൽ ഒരു പത്ത് ഒരു ഇരുപത് വർഷത്തിനൊക്കെ മുമ്പായിരുന്നെങ്കില് ഈ ചാണകം വല്ലാണ്ട് വേറെ ഒന്നും അല്ലേൽ ജൈവവളങ്ങളാക്കി വേസ്റ്റോ ഉൽപാദിപ്പിച്ച് അതങ്ങനെ വളങ്ങളാക്കി ഉപയോഗിക്കുന്നു അതൊക്കെ ആയിരുന്നെങ്കില് കഴിക്കുന്ന സാധനത്തിനും പിന്നെ അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊന്നും വിഷാംശങ്ങള് വരുന്നില്ല പക്ഷേ ഇപ്പം കൊടുത്ത കടുത്ത വിഷമാണ് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും അല്ല ഉണ്ടാക്കുന്ന എല്ലാ എല്ലാം എല്ലാ ഉൽപാദനത്തിലും അല്ലെങ്കിൽ എല്ലാ ഭക്ഷണവും ഭക്ഷണവും ഉൽപാദിപ്പിക്കുന്നത് എന്തിലും കടുത്ത വിഷമാണ് സാധാരണ സാധാരണക്കാര് ഉപയോഗിക്കുന്നത് പോലും കൂടെ കടുത്ത കീടനാശിനി വിഷം നിറഞ്ഞ മരുന്നുകള് ഇപ്പോൾ ഉദാഹരണം ഏ ഇടുക്കിയിൽ ഇതാണ് ഉപയോഗിക്കുന്നത് ഏത് എല്ലാവർക്കും കൃഷി ഏലവാണ് ഏലം തേയില ഈ തേയിലയാണ് എല്ലാ വീട്ടുകാരുടെയും കൃഷി എന്ന് പറയുന്നത് പക്ഷേ ഇതിന് കടുത്ത വിഷാംശങ്ങള് നിറഞ്ഞ മരുന്നുകളാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് കാരണം ഇത് ചെയ്തില്ലെങ്കില് കൃഷിയില്ല ഉണങ്ങി പോകുന്നു നശിച്ചു പോകുന്നു വാഴക്കൊക്കെ ആണേലും പണ്ട് ചാരം മാത്രം ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പം ഇപ്പം കീടനാശിനികള് വളങ്ങള് ഉപയോഗിക്കുന്നത് കൊണ്ട് വാഴ കൃഷി നന്നാകുന്നില്ല അത് കീടനാശികള് തന്നെ അല്ലേൽ മരുന്നുകള് തന്നെ ഉപയോഗിച്ചെങ്കില്ലെ അതിന് സാധിക്കുകയുള്ളു അല്ലാതെ പഴയ പോലെ ചാണകമോ ചാരം ഇട്ടാൽ അതാകുന്നില്ല ഒന്നെങ്കില് അതിൻ്റെ വാഴ കൂമ്പടയുന്നു കൂമ്പൊടിയുന്നു വാഴ ഒടിഞ്ഞ് പോകുന്നു ഇന്ന് വളം ചേർത്താലോ ഈ ഇങ്ങനെ സാങ്കേതികമായ പദ്ധതികളിലൂടെ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള അല്ലെങ്കിൽ മരുന്ന് ചേർത്തില്ലെങ്കില് ഇന്ന് കൊടുത്തില്ലെങ്കില് കൃഷിയൊക്കെ നശിച്ചു പോകുവാണ് ഇങ്ങനെ നശിക്കുന്ന കൃഷികൾക്ക് നമ്മള് എന്ത് ചെയ്യാൻ സാധിക്കും ഈ വിളകളുടെ ഗുണവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുവാൻ ഈ പഴയ കാലത്തെ പോലെ ചാണകപ്പൊടിയോ ചാണകവോ ഇട്ടാല് ഉൽപാദന ക്ഷമത വർദ്ധിക്കില്ല ഇപ്പോഴുണ്ടാകുന്ന പല കീടനാശിനികളും അല്ല പല വിഷാംശം നിറഞ്ഞ മരുന്നുകളും ഇപ്പം ചേർത്തേ സാധിക്കുകയുള്ളു അതിനായി ഇതൊന്ന് ഈ വിഷാംശങ്ങളില്ലാത്ത ഈ മരുന്നുകള് ആയിരിക്കണം എല്ലാ മനുഷ്യരും ചേർക്കേണ്ടതാണ് അപ്പം നമ്മള് കടയിൽ നിന്നും മേടിക്കുന്ന സാധനങ്ങള് അല്ലെങ്കിൽ ഭക്ഷണ പദാത്ഥങ്ങൾക്കൊന്നും വിഷാംശം ലഭിക്കാതിരിക്കും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മള് വളർത്തുന്ന പച്ചക്കറികൾക്ക് അല്ലെങ്കിൽ മറ്റ് കൃഷികൾക്ക് കിട്ടുന്ന ഫലങ്ങള് മതി അതിന് വീട്ടിലുൽപാദിപ്പിക്കുന്ന വളവും അല്ലെങ്കിൽ പച്ച പച്ച ചാണകവോ ഉണക്ക ചാണകവോ അങ്ങനെ ഒക്കെ പൊടിയിട്ട് വളർത്തുമ്പോൾ അല്ലെങ്കിൽ ആ കിട്ടുന്ന ഫലം തിന്നുമ്പം നമ്മള് രോഗങ്ങളിൽ നിന്ന് വിമുക്തരാകുന്നു